വാർത്താ മാധ്യമങ്ങളെ കുറിച്ചു പറയുവാണെങ്കിൽ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമപ്രദേശങ്ങള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അവർ മതിയായി കാണിക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നില്ല അവർ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പിന്നെ ചില പ്രദേശങ്ങളിലൊക്കെ ചിലപ്പോൾ ദാരിദ്യം ഒക്കെ ആയിരിക്കും എല്ലാ പ്രദേശങ്ങൾക്ക് ഇപ്പോൾ ഒരുപോലെ ആയിരിക്കില്ലല്ലോ പ്രദേശങ്ങളിലല്ല ഉദ്ദേശിക്കുന്നത് പ്രദേശങ്ങളിലെ പല സ്ഥലങ്ങളിലും പക്ഷേ എല്ലാരി എല്ലാവരുടെ അടുത്തും ഇപ്പം എത്തിച്ചേരാൻ പറ്റി എന്ന് വരില്ല അപ്പോൾ ഈ വാർത്തയിൽ ഒക്കെയാണ് ഇപ്പോൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പിന്നെ വിഭാഗം ആൾക്കാരുണ്ടെങ്കിൽ വാർത്തയിലൂടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പലതരം സഹായങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും ഇപ്പോൾ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് ഗവൺമെന്റിന്റെ അടുത്താണെങ്കിലും ഗവൺമെന്റിന്റെ അടുത്ത് നിന്നാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ആൾക്കാരുടെ അടുത്താണെങ്കിലും പാർട്ടിക്ക് പാർട്ടിക്കാരെ അടുത്തുനിന്നൊക്കെ ആണെങ്കിൽ സഹായം കിട്ടണമെങ്കിൽ നമ്മളിപ്പം മാധ്യമങ്ങൾ വഴി ഒക്കെ അറിയുവാണെങ്കിലാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾ വഴി ഒരുപാട് കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് സഹായങ്ങൾ മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഈ മാധ്യമങ്ങൾ അവരുടെ അതായത് ഉള്ളിലേക്ക് ഇറങ്ങി ന്യൂസുകളൊക്കെ ഓരോന്ന് കണ്ടുപിടിക്കുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരമായിരിക്കും ഇവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരണം ആങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് പിന്നെ ആക്സിഡന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ പക്ഷേ ഇവർ ജനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവർ ന്യൂസ് പിടിക്കുവാണെങ്കിൽ അവർക്കും ജനങ്ങൾക്കും ഒരുപാട് ഉപകാരമായിരിക്കും